നമ്മുടെ സംസ്ഥാനത്ത് വ്യത്യസ്തമായ കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അക്കാദമീസ് ഉണ്ട് അതിലൊന്നാണ് സ്റ്റേറ്റ് ഫുട്ബോൾ അക്കാദമി അതുപോലെ ക്രിക്കറ്റ് അക്കാദമി അതുപോലെ പല പല കായിക മേഖകളിലുള്ള അക്കാഡമീസുണ്ട് അതിലൂടെ ഒരോ കുട്ടികളെയും കായികമായി വളർത്തി എടുക്കുകയും അത് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അതൊരു വളർച്ച തന്നെയാണ്